വയോജനങ്ങൾക്ക് ഉള്ള അവസരങ്ങൾ എന്നുവെച്ചാല് വായനശാലകളിലും മറ്റുമായിട്ട് വയോജന സമിതി അങ്ങനെ രൂപീകരണം രൂപീകരണമൊക്കെ ഉണ്ട് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ മാത്രമല്ല ഒരുവിധം എല്ലാ ജില്ലയിലും ഉണ്ടാകും വയനാട്ടിൽ അതുണ്ട് പിന്നെ മരുന്നുകൾ വാർദ്ധക്യ സമയത്തുള്ള മരുന്നുകൾ ആയുർവേദത്തിൻ്റെ മരുന്നുകൾ കുഴമ്പുകൾ അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് പിന്നെ അവർ സമയം പോകാൻ വേണ്ടി വായനശാലകളിൽ ആയിട്ട് ഒരുപാട് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് പിന്ന മാത്രമല്ല പെൻഷൻ കിട്ടുന്നുണ്ട് അതൊക്കെ അതൊക്കെ നല്ലൊരു വാർദ്ധക്യത്തിലെ എന്താ പറയുക നല്ലൊരു അവസരങ്ങളായിട്ടാണ് കാണുന്നത് പിന്നെ വച്ചാൽ വെല്ലുവിളികൾ എന്നുവെച്ചാൽ പാലിയേറ്റീവിൻ്റെ ഒക്കെ കുറച്ചുംകൂടി ഒരു കുറച്ചും കൂടിയൊരു സപ്പോർട്ട് അതായത് സുഖം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വണ്ടിയൊക്കെ ഹോസ്പിറ്റലില് പോകാനൊക്കെ എപ്പോൾ വിളിച്ചാലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സേവനങ്ങൾ ഏത് പാതിരാത്രിയ്ക്ക് വിളിച്ചുകഴിഞ്ഞാലും വയ്യാത്ത ആൾകാർക്ക് ഹോസ്പിറ്റലില് പോവാൻ ഉള്ള ഒരു വാഹനങ്ങളിപ്പോൾ ഒന്നോ പഞ്ചായത്തില് ഒന്നോ രണ്ടോ ഒക്കെ വാഹനങ്ങൾ ഉണ്ടാവുള്ളു കുറച്ചുംകൂടി ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുംകൂടി ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുംകൂടി നല്ലതായിരുന്നുവെന്ന് തോന്നുകയാണ് പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ഒരു പെൻഷനും കാര്യങ്ങളും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുണ്ട് അത് നല്ലൊരു അവസരങ്ങളാണ് പിന്നെ വാർദ്ധക്യം ഒരു വിഷമാവാതെ ആസ്വദിക്കാനുള്ള പല അവസരങ്ങളും ഉണ്ട്